അച്ചാറുണ്ടാക്കുന്ന വിധം ഞാൻ മീനച്ചാറിടുന്നു മീന് കടയിൽ പോയി മീൻ മേടിച്ചോണ്ട് വന്ന് മീന് ഇന്ന് രാത്രിയില് അത് കഷ്ണം കഷ്ണങ്ങളാക്കി വെള്ളത്തിലിടും വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് മീനിനെ എടുത്തിട്ട് പിന്നെ കീറി കഷ്ണമാക്കി നുറുക്കും നുറുക്കിയിട്ട് അതിനെ കഴുകിപ്പിഴിഞ്ഞ് നന്നായി വൃത്തിയാക്കി കഴുകി പിഴിഞ്ഞതിനെ വെയിലത്ത് വയ്ക്കും വെയിലത്ത് വച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞ് കഴിയുമ്പോള് ഈ മീനിനെ എടുത്തുകൊണ്ടുവന്ന് ചീനച്ചട്ടിക്കകത്ത് എണ്ണയൊഴിച്ച് തീയേ വയ്ക്കും തീയേ വെച്ചിട്ടത് കുറേ നേരം ഇങ്ങനെ ഉളക്കിയിളക്കി മീൻ മൂക്കണം മീൻ മൂത്തു കഴിയുമ്പോള് അതും കോരി എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഇഞ്ചി കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ഇതെല്ലാങ്കൂടെ ഇടിച്ച് ചതച്ച് ഈ എണ്ണ തീയേ വയ്ക്കും എന്നിട്ടതിനകത്തോട്ട് കടുകിടും എന്നിട്ടീ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചി കറിവേപ്പിലയെല്ലാം കൂടെ അതിനകത്തിട്ട് വരട്ടും ഉളക്കി ഇത് വരട്ടിയിട്ട് അതിനകത്ത് കളര് മാറിവരുമ്പോള് അതിനകത്തോട്ട് പിന്നെ മീനിൻ്റെ മുളക് പൊടി അച്ചാറ് പൊടിയുണ്ടെങ്കിൽ അച്ചാറ് പൊ അച്ചാറിടുന്ന പൊടിയുംകൂടി കൂട്ടിയിട്ടിട്ട് നന്നാക്കി ഇളക്കിയിളക്കി ചൂടായിക്കഴിയുമ്പോള് നന്നായി ചൂടായി ക്കഴിയുമ്പോള് ഈ മീനങ്ങോട്ടിടും മീനങ്ങോട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് ഇച്ചിരി വിനാഗിരിയൊഴിച്ച് പിന്നെ മീനച്ചാറ് വാങ്ങിവെക്കുന്നു അങ്ങനെ മീനിൻ്റെ അച്ചാറ് ആയി ഇനി അടുത്ത അച്ചാറ് പിന്നെ നാരങ്ങാ അച്ചാറ് നാരങ്ങാ മേടിച്ചോണ്ട് വന്ന് നാരങ്ങ പിന്നെ വാട്ടും ഉപ്പിനകത്ത് ഉപ്പ് നീരിനകത്ത് വാട്ടുകയോ അല്ലെങ്കില് വെള്ളം തിളപ്പിച്ച് ഇതിനകത്തിട്ട് വാട്ടുകയോ ചെയ്യാം അങ്ങനെ വാട്ടിയെടുത്തിട്ട് നാരങ്ങാ കഷ്ണം കഷ്ണമാക്കി ഞുറുക്കി നാലാ നാലോ ആറോ അങ്ങനെയെല്ലാവാക്കി ഞുറുക്കി കഷ്ണവാക്കീട്ട് അതിനെ ഉപ്പ് തിരുമ്മിവെക്കും അത് കഴിഞ്ഞിട്ട് അതിനാ എണ്ണയും കടുകും അടുപ്പേല് ചീനച്ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് കടുകുമിട്ട് അത് കഴിഞ്ഞിട്ട് ഈ അരപ്പ് അച്ചാറുപൊടിയും മുളകുപൊടിയും അതിനകത്ത് ചേർത്ത് ഇളക്കി നന്നായി മൂത്ത് കഴിയുമ്പോള് ഇതരിഞ്ഞ് വെച്ചിരുന്ന നാരങ്ങയെടുത്തിട്ട് അതിനകത്തോട്ടിട്ടിട്ട് അത് ഇളക്കി പാകത്തിനാക്കി കുറച്ച് വിന്നാഗിരി ഇച്ചിരി തണുത്ത് കഴിയുമ്പോള് ഇച്ചിരി വിന്നാഗിരി ഒഴിച്ച് അത് വാങ്ങിവെക്കും അങ്ങനെ നാരങ്ങാ അച്ചാറ് പിന്നെ മാങ്ങാ അച്ചാറ് മാങ്ങാ കൊണ്ടുവന്ന് നന്നായി വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് കഷ്ണം കഷ്ണമാക്കി അരിഞ്ഞ് പിന്നെ ചെറുതാക്കി അരിയണം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ട് അതിനകത്തോട്ട് ഉപ്പും തിരുമ്മി ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും തിരുമ്മിവെച്ചിട്ട് പിന്നെ എണ്ണ ഇത് അതവിടെ വയ്ക്കും അതുകഴിഞ്ഞിട്ട് എണ്ണ ചീനച്ചട്ടിക്കകത്ത് എണ്ണയൊഴിച്ചിട്ട് പിന്നെ കടുകൊക്കെ ഇട്ട് അരപ്പ് മുളകുപൊടിയും അച്ചാറ് പൊടിയും അതിനകത്തോട്ട് ഉലുവ പൊടിച്ചിടണം കടുക് പൊടിച്ചിടണം അങ്ങനെ എല്ലാവാക്കി അരപ്പ് ഇളക്കിപ്പെറുക്കി എടുത്ത് വയ്ക്കണം വിനാഗിരി ഒഴിക്കണോങ്കിൽ വിനാഗിരി ഒഴിക്കാം പുളിയില്ലാത്ത മാങ്ങയാണെങ്കില് പിന്നെ വെളുത്തുള്ളി അച്ചാറിടാം വെളുത്തുള്ളി പിന്നെ പൊളിച്ച് കുഞ്ഞാക്കി ഇതാക്കിയെടുത്തിട്ട് എണ്ണക്കകത്ത് വാട്ടിയെടുത്തിട്ട് അതിനകത്ത് പിന്നെ അരപ്പുകളെല്ലാം ചേർത്ത് വിനാഗിരി ഒഴിച്ച് അങ്ങനെ വെളുത്തുള്ളി അച്ചാറിടാം പിന്നെ പിന്നെ എന്നിട്ടൊന്നുമില്ല